ഹലോ ഇത് കല്യാണി ടൂറിസ്റ്റ് ആൻഡ് കൺസൾട്ടന്റ് ഏജൻസി അല്ലെ ആ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് നമുക്ക് ഒന്ന് കേരളത്തിലേ ഒന്ന് ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ടൂറ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അവിടുത്തെ ഒരു ഏറ്റവും ഇപ്പം ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇപ്പം വിസിറ്റ് ചെയ്യാൻ പറ്റിയ പോപ്പുലർ ആയിട്ടുള്ള പ്ലേസസ് ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഇപ്പം വന്ന് കഴിഞ്ഞാൽ

നമുക്ക് ഒന്ന് സ്റ്റേ ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നിന്ന് കാണാനൊക്കെയുള്ള ഒരിതായിട്ടാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്തിട്ടേ

ആ ഓ പോകണമെല്ലെ അപ്പോൾ മൂന്നാർ എങ്ങനെയാണ് ഇപ്പോൾ മുന്നാറ് നമുക്ക് എങ്ങനെയാണ് അവിടെ എങ്ങനയാണ് ഫേമസായിട്ട്

അവിടെ എന്താ ഫേമസായിട്ട് അവിടെ ഇപ്പോൾ കാണാൻ എന്താ ഉള്ളത് മുന്നാറൊക്കെ വന്ന് കഴിഞ്ഞാൽ ആ അതെ ആ ആ ആ അപ് ആണോ ഈ ആലപ്പുഴ എങ്ങനെയാണ് ആലപ്പുഴ എങ്ങനെയാണ് നമുക്ക് ഹൗസ് ബോട്ടുകൾ ആണ് അപ്പം ഞങ്ങള് വന്ന് ഇപ്പം നിങ്ങളെ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പിക്ക് ചെയ്യുമോ ഇപ്പം നമ്മൾ ഇപ്പം പ സ്വന്തം വണ്ടിയിൽ വരാനാണുദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ കൊണ്ടുവന്ന് ഇപ്പം എല്ലാ സ്ഥലവും കാണിക്കാനുള്ള ഗൈഡ് ഒക്കെ ഉണ്ടാകുമോ ആണല്ലേ അപ്പം ഞങ്ങൾ അവിടെ വന്ന് വന്നിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്നാണ് വരുന്നത് മുമ്പ് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള സംവിധാനം ചെയ്ത് തരുമോ നമുക്ക് അപ്പം എങ്ങനെയാണ് ആ അതാ ചോദിച്ചത് ആ ആ ആ സെലക്ട് ചെയ്യാമല്ലെ ആ ഓക്കെ ഓക്കെ അപ്പം എനിക്ക് അതൊന്ന് എല്ലാം ഒന്ന് അയക്കുമോ ഒന്ന് മെയിൽ ചെയ്ത് തരുമോ ഞാൻ അപ്പം ഒന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് വരണ്ടത് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ ശരി എന്നാൽ ഓക്കെ ബൈ